ഗ്രാമങ്ങളിൽ കളിക്കുന്ന കളി എന്ന് പറയുമ്പം നമ്മള് ഫുട്ബോള് കളിക്കും അതുപോലെ ഷട്ടില് ക്രിക്കറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കളികള് കളിക്കാറുണ്ട് അതുപോലെ നമ്മള് വൈകുന്നേരങ്ങളിലും അല്ലെങ്കി രാത്രി കാലങ്ങളിലൊക്കെ എല്ലാരും ഈ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചെറിയ ചയക്കടയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൗണ്ടുകളിലോ ചെസ്സ് കളിക്കും അല്ലെങ്കിൽ ക്യാരംസ് ഇപ്പോൾ കൂടുതലായും എല്ലാവരും മൊത്തം ക്യാരംസാണല്ലോ കൂടുതൽ കളിക്കുന്നത് അതാകുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കളിക്കാലോ അങ്ങനെയുള്ള ഒരുപാട് കളികള് ഗ്രാമീണറ് കളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മള് പെൺകുട്ടികളാണെങ്കിലും വൈകുന്നേരങ്ങളില് നമ്മുടെ ഒരു എക്സസൈസ് പോലെ ഷട്ടില് കളിക്കുന്നുണ്ട് പിന്നേ ഫുട്ബോള് കളിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ കൂടു ക്രിക്കറ്റ് കാണാൻ പോകുന്നുണ്ട് ഇപ്പോൾ കളിക്കാനും ചിലര് പോകും കാണാനും ചിലര് പോകും ഇങ്ങനെ ഒരുപാട് കളികള് ഗ്രാമങ്ങളില് ആയിക്കോട്ടെ നല്ല രസമായിരിക്ക് ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ വയില് വെയിലൊക്കെ താണ സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാര് ഗ്രൗണ്ടില് ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് പോകാറുണ്ട്